ആ ഞാനൊരു ചേട്ടൻ്റെയൊരു പ്രിയ്യേ ഒരു സുഹൃത്താണെ ഞാൻ ആ നമ്മുടെ ചായക്കടയിൽ എനിക്കെന്തെങ്കിലും കടിക്കാൻ വേണം എന്നാ ചേട്ടാ കടിക്കാനുള്ളത് ആ ഷുഗറൊന്നും ഇല്ല ചേട്ടാ പാലപ്പം ഉണ്ടോ എനിക്കതായിരുന്നു ഇഷ്ടം പാലപ്പവും മുട്ടക്കറിയും ആ പാലപ്പവും ഗ്രീൻ പീസും മതിയെനിക്ക് കടുപ്പത്തിൽ ചായ വേണ്ട എനിക്ക് ലൈറ്റായിട്ട് പ്രിയേട്ട ഞാൻ കടുപ്പത്തിലങ്ങനെ കുടിക്കാറില്ല ഞാൻ ലൈറ്റ് ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല ചേട്ടന് സുഖമൊക്കെയാണോ ഇല്ല ഒത്തിരി കാലമായല്ലോ കണ്ടിട്ട് അന്നത്തതിനും വലിയ കോടീശ്വരനായല്ലോ ഓൺലൈൻ ബിസിനസ്സല്ലേ പരിപാടിയൊക്കെ ഇല്ല ചേട്ടാ അങ്ങനെയൊന്നും പറയാതെ ഇപ്പോൾ മുഴുവനും ഓൺലൈനല്ലേ ഇവിടെ നോക്കിക്കേ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടും ആമസോണുമൊക്കെ ഇവിടെ കോടീശ്വരന്മാരായി ബോണ്ട വേണമെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ ചേട്ടനെ അങ്ങനെ പറയാതെ ബിസിനസ്സൊക്കെ ചേട്ടൻ ഭയങ്കര ലാഭമാണെന്നു ഞാൻ കൂട്ടുകാരൊക്കെ വെളിയിൽ പറഞ്ഞറിഞ്ഞു കൊണ്ടേയിപ്പോൾ ബെന്നിച്ചായനവിടുത്തെ വലിയ ഒരു വലിയ മുതലാളിയായെന്നാണ് ഞാനറിഞ്ഞത് കേട്ടോ അതു ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നും പറയാതെ ചേട്ടൻ പെട്ടെന്നങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ ഇതു നമ്മുടെ ചേച്ചിക്കെന്നാ പരിപാടി അതു കേൾക്കട്ടെ കേൾക്കുന്നുണ്ട് പാലപ്പത്തിന് വിലയെത്രയാണ് ചേട്ടാ അയ്യോ പന്ത്രണ്ട് കൂടുതലാണ് ഞങ്ങളുടെയവിടെയൊക്കെ പത്ത് രൂപയെ ഉള്ളു ചേട്ടൻ പറയുന്നതല്ലേ ചേട്ടനത് പറയുന്നതല്ലേ എൻ്റെ കണ്ണു കൊണ്ട് കണ്ടിട്ടില്ലല്ലോ ചേട്ടൻ കള്ളാണോ ഒഴിക്കുന്നത് ബിസിനസ്സല്ലേ ചേട്ടാ ചേട്ടനാരെങ്കിലും കള്ളൊഴിച്ച് തരുമോ ഇതൊക്കെ ഈസ്റ്റിട്ടല്ലേ തരത്തുള്ളൂ ബിസിനസ്സെന്നു പറയുമ്പോൾ ചേട്ടൻ്റെ പുരോഗമനത്തിനു വേണ്ടി ബിസിനസ്സ് നടത്താൻ വേണ്ടി ചേട്ടനിങ്ങനെ പറയാ എന്നോട് കള്ളൊഴിച്ചാണത് അതിനൊക്കെ പന്ത്രണ്ട് രൂപാ മേടിക്കുകയെന്നു പറയുന്നത് എന്നാ ഒരു നഷ്ടമാണ് ഭയങ്കര കഷ്ടമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓക്കേ താങ്ക് യൂ കേട്ടോ